അൺഎംപ്ലോയ്മെൻ്റ് ചെറിയ തോതിലെങ്കിലും കൂടുതലാണ് ഇപ്പോൾ റൂറൽ ഏരിയാസിൽ പോലും എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും അതിനോട് തുല്യമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ജോലിയൊന്നും യുവാക്കൾക്ക് ഇടയിൽ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ അവരെ മൈഗ്രേഷന് ഏറ്റവും കൂടുതൽ അവർ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് കാരണം മറ്റു രാജ്യത്തേക്ക് പോകുകയാണെങ്കിൽ അക്കോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ഉണ്ട് സ്റ്റാൻഡേർഡ് ഉള്ള ലിവിങ് എന്നു പറയുന്നത് അവിടുത്തത് ഈസി ആണ് അതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റും കിട്ടുന്ന കുറേയുണ്ട് പക്ഷെ ഇന്ത്യൻ തൊഴിൽ വിപണി എന്ന് പറയുന്നത് അതിൽ ജോലി കണ്ടെത്താനും അതിനെ ആക്സസ് ചെയ്യാനും ഏറെ ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യുന്നുണ്ട് പല സ്റ്റാർട്ടപ്പുകൾക്ക് ഏറ്റവും കൂടുതൽ യോജിച്ച ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ ആണെങ്കിൽ പോലും അവിടെ ഉണ്ടാവാനായിട്ട് കുറേ ഡിഫിക്കൽറ്റീസ് ഉണ്ട് പക്ഷെ പല പേപ്പർ വർക്കാവും അല്ലെങ്കിൽ പല ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് വെല്ലുവിളികളെന്ന് പറയുമ്പോൾ യുവാക്കളുടെ മൈഗ്രേഷനാണ് അതായത് ഒരു ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലീവിങ് അതോ സാലറിയൊക്കെ ആശ്രയിച്ചു കുറേ ആൾക്കാർ പോകുന്നുണ്ട് പുറത്തേക്ക് അപ്പോൾ അതുവഴി അവർ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽറ്റീസും കൂടുതലാണ് അവസരങ്ങൾ എന്നു പറയുമ്പോൾ ഇവിടെ സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ചിലപ്പോൾ വിൻ ചെയ്യാനും അതുപോല തന്നെ ഫീ ൽ ചെയ്യാനുള്ള ഈക്വൽ ചാൻസ് ഉണ്ട് ഒരു ഇത് തുടങ്ങി കഴിഞ്ഞാൽ അത് ഡെഫിനിറ്റലി സ്റ്റാർട്ട് ഫസ്റ്റ് ഇങ്കം കിട്ടുന്നുണ്ട് പിന്നെ ഫോമിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കുറവുമാണ്